കൃഷിയെക്കുറിച്ച് എനിക്കടുത്ത തലമുറയോട് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം നിങ്ങൾ കുടുംബത്തോടെ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അയ്യങ്ങളിലോ നിങ്ങളുടെ വീട്ട് കോമ്പൗണ്ടിലോ മാക്സിമം നിങ്ങൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക പിന്നെയത് കൃഷി ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കുറച്ച് നിങ്ങളെടുത്തിട്ട് പകുതി നിങ്ങൾ വിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക വെളി രാജ്യങ്ങളിൽ നിന്ന് മറ്റേ പച്ചക്കറി മലക്കറി വാങ്ങുന്ന ഇത് നിങ്ങൾ സ്വഭാവങ്ങൾ എന്തോ ഒരിത് മാറ്റി വെക്കുക പിന്നെ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കൃഷി കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് അപ്പോൾ നിങ്ങളുടെ സാമ്പത്തികം ബുദ്ധിമുട്ട് പകുതി കുറഞ്ഞ് കിട്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പകുതി കുറഞ്ഞ് കിട്ടും പിന്നെ കൃഷി നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്തുവാ നിങ്ങൾ മാക്സിമം നിങ്ങൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ മാക്സിമം ചെയ്യണം എനിക്കിത്രയേ ഉള്ളു പിന്നെ നിങ്ങൾ മാക്സിമം കൃഷി ചെയ്തിട്ട് നിങ്ങൾ അത് നിങ്ങൾക്ക് ഓരോ കടകളിൽ കൊണ്ട് വിൽക്കാനും പകുതി നിങ്ങളെടുക്കാനും ശ്രമിക്കുക പിന്നെ നിങ്ങൾ കെമിക്കലോ അങ്ങനെ മായാമോ ഒന്നും ചേർക്കാതെ ഇരിക്കുക ഓക്കേ